ആ കോഴിക്കോട് ജില്ലയിൽ പിന്തുടരുന്ന ചില പൊതുവായ സാമൂഹിക അല്ലെങ്കില് സാംസ്കാരിക രീതികള് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കില് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് സാമൂഹിക രീതികള് സാംസ്കാരിക ആചാരങ്ങള് ഐക്യം അതായത് നമ്മള് ആൾക്കാര് തമ്മിലുള്ളൊരു ഐക്യം പിന്നെ സമത്വം അതൊക്കെയാണ് പിന്നെന്നുവെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഓരോ ഉത്സവങ്ങള് അതായത് നമ്മള് ഉത്സവത്തിനൊക്കെയാണ് നമ്മളെല്ലാരും കൂടെ ഒത്തുചേരാറ് അതായത് നമുക്ക് പറയാനാണെങ്കിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രോത്സവം ഗ്രാൻഡ് മലബാർ ഉത്സവം തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രോത്സവം അങ്ങനെയുള്ളതിലൊക്കെ നമ്മളെല്ലാരും അതായത് പൊതുസമൂഹങ്ങളെല്ലാവരും ഓ ഒത്തുചേരുന്നൊരു നിമിഷമാണതൊക്കെ